ഗ്രാമത്തിലേ വാർത്തകൾ പലപ്പോഴും പത്രങ്ങളിൽ സത്യമായിട്ടല്ല പറയുന്നത് ചിലപ്പോഴക്കെ അത് പെരുപ്പിച്ച് കാട്ടുന്നു ചിലപ്പോഴൊക്കെ ശരിയായ പ്രശ്നങ്ങൾ ഒരിക്കലും പറയാറില്ല വളരെ കുറഞ്ഞ രീതിയിലേ സത്യങ്ങൾ പറയാറുള്ളൂ ഗ്രാമീണ മേഘലയിലെ കർഷകൻറ്റെ ബുദ്ധിമുട്ടുകളെ ഒരിക്കലും പത്രങ്ങൾ സത്യമായി പറയാറില്ല കാരണം ഇപ്പോൾ ലോകം വളരെ മുൻപോട്ട് കുതിക്കുകയാണ് അതുകൊണ്ട് പല ആൾക്കാർക്കും ഗ്രാമീണരെപ്പറ്റി അറിയേണ്ട കാര്യമില്ല അവർക്ക് അവരുടേതായ ജോലികൾ ചെയ്യാനും അവരുടേതായ സന്തോഷങ്ങളിലേർപ്പെടാനുമേ സമയമുള്ളു സിറ്റികളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ബാക്കിയുള്ളവരെ നോക്കേണ്ട ഒരു കാര്യമില്ല അവർക്ക് അവരുടേതായ ജോലികൾ ചെയ്യുക അവരുടേതായ സന്തോഷം കണ്ടെത്തുക അതൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മൾ പത്രങ്ങളിലേക്ക് നോക്കിയാൽ വളരെ ചെറിയൊരു വാർത്തയേ ഗ്രാമീണ മേഖലകളെപ്പറ്റി കാണാൻ കഴിയുകയുള്ളൂ ബാക്കിയെല്ലാം തന്നെ രാഷ്ട്രീയവും ഒക്കെയാണ് കാണിക്കുന്നത് ഒരിക്കലുംതന്നെ കർഷകൻറ്റെ വേദനയോ അല്ലെങ്കിൽ ഗ്രാമീണത്തിൽ നടക്കുന്ന ഗ്രാമത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെയോ ഒരു പത്രത്തിൻറ്റെ മുഖ്യ പേജിൽ കാണാൻ കഴിയുകയില്ല ഗ്രാമങ്ങളിൽ പലപ്പോഴും ഗ്രാമങ്ങളിൽ പലപ്പോഴും തെറ്റായ രീതികളിലേ വാർത്തയേ കാണിക്കാറുള്ളൂ ശരിയാണ് ബാക്കി സിറ്റികൾ താമസിക്കുന്ന ആൾക്കാർ നോക്കുമ്പം ഗ്രമീണ മേഖലയിലുള്ളവർക്ക് വലിയ വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല അവർ അവരുടെ അത്രയും സിറ്റികൾ താമസിക്കുന്ന ആൾക്കാർ അവരെ താരതമ്യം ചെയ്യുമ്പോൾ ഗ്രാമീണ മേഘലയിൽ താമസിക്കുന്നവർക്ക് അവർ സിറ്റികൾ താമസിക്കുന്ന ആൾക്കാരുമായി ആൾക്കാരുടെ അത്രയും വിദ്യാഭ്യാസമോ ബുദ്ധിയോ അവർ കാണുന്നില്ല എന്നിരുന്നാലും ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവരും മനുഷ്യർ തന്നെയാണ് അവർക്കും അവരുടേതായ കാര്യങ്ങളും അവരുടെ പരിഭവങ്ങളും രാഷ്ട്ര തലവന്മാരെ അറിയിക്കണമെന്നുണ്ട് ഇത് പലപ്പോഴും സാധിക്കുകയില്ല എന്നിരുന്നാലും ഗ്രാമീണ മേഘലയിലെ മേഖലകളിൽ ഒരു വന്യ വന്യമൃഗത്തെ കൊന്ന് കഴിഞ്ഞാൽ അതിന് അത് ഒരു വലിയ വിഷയമായും പത്രങ്ങളുടെ മുഖ്യ പേജിൽ കാണാൻ കഴിയും ഇതേ സമയം ഒരു മനുഷ്യനെ ഒരു മൃഗം കൊന്ന് കഴിഞ്ഞാൽ അതൊരിക്കലും കാണിക്കാറില്ല ഗ്രാമത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവനേപ്പറ്റിയൊന്നും ആരും അന്വേഷിക്കാറ് ഒന്നുമില്ല മൃഗത്തെ കൊന്ന് കഴിഞ്ഞാൽ അവരെ അതിന് നടപടികളായി ജയിലിലടയ്ക്കും എന്നാൽ മൃഗം നാട്ടിലിറങ്ങി കർഷകരെയോ മനുഷ്യരെയോ ആയ കർഷകരുടെ കൃഷിയെ നശിപ്പിച്ചാലൊന്നും അതിനെ ചോദ്യം ചെയ്യാനോ അതിനെതിരെ ഒരു നടപടി എടുക്കാക്കാനോ ഇവിടെ ആരുമില്ല വോട്ടിന് വേണ്ടി മാത്രമാണ് രാഷ്ട്രീയക്കാർ ഗ്രാമങ്ങളിലേക്ക് വരുന്നത് അവർക്ക് വേണ്ടത് വോട്ട് അത് കിട്ടി കഴിയുമ്പോൾ അവർ ജയിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർ പിന്തിരിഞ്ഞ് നോക്കുകയില്ല വോട്ട് ചെയ്യുന്ന സമയമാകുമ്പോൾ അവർ ഗ്രാമത്തിലേക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നു അവരെപ്പറ്റി വലിയ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുമെന്ന വാഗ്ദാനവും ചെയ്യുന്നു എന്നാൽ ഇവർ ജയിച്ച് കഴിഞ്ഞാൽ ആ ഗ്രാമത്തിലെ ആൾക്കാരെ ഇവർ തിരിഞ്ഞ് നോക്കാറില്ല ഇതിനെതിരെ പ്രതികരിച്ചാൽ രാഷ്ട്രീയക്കാർ അവരുടെ ആണികളെ വെച്ച് ആ ഗ്രാമീണ മേഘലയിലെ ആളുകളെ നശിപ്പിക്കുകയോ ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത് ഇതൊരിക്കലും ഇന്നേവരെയും ഒരു പത്രത്തിലും വന്ന് കഴിഞ്ഞിട്ടില്ല നഗരത്തിൽ താമസിക്കുന്നവർക്ക് ഇതിനെപ്പറ്റി അറിയേണ്ട കാര്യവുമില്ല ഗ്രാമീണ മേഖലയിലുള്ളവർക്ക് വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ട് അവർക്കത്രയും ബുദ്ധിമില്ല ബുദ്ധിയുമില്ല എന്ന് ആണ് രാഷ്ട്രീയക്കാർ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഒരു നടപടി എടുക്കാൻ ആരും വിധിക്കുകയില്ല എന്ന് രാഷ്ട്രീയക്കാർക്ക് ഉറപ്പായ ബോധ്യമുണ്ട് ഗ്രാമീണ മേഖലയിൽ ഉള്ളവരുടെ കൃഷിയോ കാര്യങ്ങളോ നശിച്ച് പോയാൽ ഇതൊന്നും അറിയേണ്ട കാര്യം നഗരത്തിൽ താമസിക്കുന്നവർക്കില്ല എങ്കിലും നഗരത്തിലുള്ളവർ നഗരത്തിൽ താമസിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക വല്ലപ്പോഴുമൊന്ന് ഓർക്കുക നിങ്ങൾ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ വസ്തുക്കൾ ഇതെല്ലാമാണ് വരുന്നത് ഗ്രാമീണ മേഘലയിൽനിന്നാണ് അവർ അവരുടെ അദ്ധ്വാനം അവരുടെ അധ്വാനവും അവരുടെ വിയർപ്പുമൊഴുക്കിയാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള അന്നം നൽകുന്നത്